വയനാട് ജില്ലയിലെ ഗതാഗത സംവിധാനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡുകൾ പിന്നെ റയിൽവേ വിമാന വിമാനത്താവളങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വയനാട് ജില്ലയിൽ ഇല്ല പക്ഷേ അതും കൂടെ വയനാട് ജില്ലയിൽ വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിൽ പോകണമെങ്കിൽ നമ്മൾ കോഴിക്കോട് പോകണം അല്ലെങ്കിൽ കണ്ണൂർ പോകണം ഇപ്പംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിമാനത്താവളത്തിൽ ആണെങ്കിൽ നമ്മൾ കണ്ണൂർ കോഴിക്കോട് എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഇല്ല പിന്നെ റോഡുകളുടെ കാര്യംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡുകൾ വളരെ മോശമാണ് ഇപ്പോൾ ഗവൺമെൻറ്റ് ഒരുപാട് പൈസ റോഡിനു വേണ്ടി ഇറക്കുന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് വേണ്ടവിധത്തിലുള്ള റോഡിൽ ഒരു സംവിധാനങ്ങളുമില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലിപ്പോൾ ഗവൺമെൻറ്റിപ്പോൾ ഒരു രണ്ടു കോടിയോ മൂന്നു കോടിയോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കോൺട്രാക്ടർമാരുടെ അടുത്തെത്തുമ്പോൾ അത് അൻപത് ലക്ഷമാവും ബാക്കി ഫുള്ള് എല്ലാവരും എടുത്തെടുത്തെടുതാണ് ഇവരുടെ അടുത്ത് എത്തുക അപ്പോൾ ഇവരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അൻപത് ലക്ഷത്തിൽ നിന്ന് ഒരു ഇരുപത് ലക്ഷം മുടക്കിയിട്ട് മാത്രമേ റോഡ് പണി ചെയ്യുള്ളു അപ്പംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് അതിനുള്ള ഒരിത് മാത്രമേ ആ റോഡിനുണ്ടാവുള്ളൂ അപ്പം എന്താന്ന് വെച്ചാൽ പിന്നെ ആക്സിഡൻറ്റുകൾ അതായത് ഇപ്പോൾ കട്ടറ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഒരുപാട് ആക്സിഡൻറ്റുകളും കാര്യങ്ങളും നടന്നിട്ട് ഒരുപാടുപേർ മരിക്കുന്നുണ്ട് അതൊക്കേന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻറ്റെ അനാസ്ഥ അനാസ്ഥമൂലം നടക്കുന്ന കാര്യങ്ങളാണ് പിന്നേന്നു വെച്ചിട്ടൂണ്ടെങ്കിൽ ഇതൊക്കെ ഒരു സാധാരണക്കാരനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് കാരണം നമുക്കെന്തായാലും ഇറങ്ങി ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഗവൺമെൻറ്റിൻറ്റെ പൈസന്ന് വെച്ചിട്ടൂണ്ടെങ്കിൽ നമ്മുടെ പൈസയാണ് നമ്മുടെ ഓരോന്ന് ജി എസ് ടി ടാക്സ് പിന്നെ സെസ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യീന്ന് പൈസ മേടിച്ചിട്ടാണ് അതായത് നികുതി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യീന്ന് മേടിച്ചിട്ടാണ് ഇവർ ഇതാക്കുന്നത് അപ്പോൾ നമുക്ക് അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കന്നെ അതൊരു വിനയാവാൻ പാടില്ല അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മര്യാദയ്ക്ക് പിന്നെ പൈസയൊക്കെ ഇറക്കി നമ്മൾ നല്ല റോഡുകളൊക്കെ പല ആക്സിഡൻറ്റുകളും ഒഴിവായി പല കുടുംബങ്ങളും രക്ഷപ്പെടും അപ്പം ഗവൺമെൻറ്റ് അതും കൂടെ ഒന്ന് നോക്കുക